മാറുന്ന ലോകത്തിൽ മനുഷ്യരുടെ മാനസികവും ശാരീരികവും ആത്മികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു സ്ഥാപനം ദൈവ പരിപാലന ഭവൻ ഇവിടെ കുന്നംന്താനത്ത് എൻ്റെ വീടിന് സമീപത്തായുണ്ട് നിത്യവും ഞാൻ ഇവിടെ സന്ദർശിക്കാറുണ്ട് രാവിലെ പരിശുദ്ധ കുർബ്ബാനയിൽ സംബന്ധിക്കും അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി ജോലികളെല്ലാം ചെയ്യുക അവിടെ നാനാ തരത്തിലുള്ള വ്യക്തികൾ അവിടെ വന്നു ചേരുക വന്നു പോകാറുണ്ട് നിത്യവും അവിടെ മാനസികവും ശാരീരികവും ആയി വൈകല്യങ്ങളുള്ള ആബാല വൃദ്ധ ജനങ്ങൾ അവിടെ അന്തേവാസികളായിട്ടുണ്ട് എൽ എസ് ബി പി ജെനലേറ്റ് ഒപ്പം അവിടെ ഈ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഭവനം കൂടിയാണ് ഇന്നത്തെ തലമുറ ആർഭാടത്തിനും സമ്പത്തിനും അടിച്ചുപൊളിക്കൊക്കെ വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ട് അവരുടെ ആ വേദനയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഓട്ടം എവിടേക്ക് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നുണ്ട് അവരുടെ കുറ്റം കൊണ്ടോ അവരുടെ മാതാപിതാക്കളുടെ കുറവ് കൊണ്ടോ എന്തുകൊണ്ട് എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഇതൊന്നുമറിയാതെ ജനിച്ചപ്പോൾ ജനിച്ച നാൾ മുതൽ വേദനയിലും ദു ഖത്തിലും രോഗത്തിലും കഴിയുന്ന ഈ വ്യക്തികൾക്ക് അവിടത്തെ സിസ്റ്റേഴ്സ് ഒരു ചേച്ചിമാരായി ഒരു അമ്മയായി ഒരു സഹോദരിയായി കൂടെയുണ്ട് എപ്പോഴും നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികൾ കുറവുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പരാധീനതകളെ കുറിച്ച് പരിഭവം പറയുമ്പോൾ പഠിക്കുന്നതിൽ അലംഭാവം കാണിക്കുമ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകാനും മദർ മേരി ലിറ്റിയുടെ കല്ലറ സന്ദർശിച്ച് ആ അമ്മ അവിടത്തെ സിസ്റ്റേഴ്സിനും അവിടെ വന്ന അന്തേവാസികൾക്കും നൽകിയ സ്നേഹത്തിൻ്റെ മാതൃക ഒന്ന് കണ്ട് അറിഞ്ഞു നമ്മടെ മനസ്സിന് അല്പമെങ്കിലും ഒരു പരിവർത്തനം വരുത്തുവാൻ കഴിഞ്ഞാൽ അവിടെ വേദന അനുഭവിക്കുന്നവരുടെ ദുഖത്തിൽ നമുക്ക് പങ്ക് ചേരാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ നന്മ